എട്ട് ഏഴ് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിയാറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി നാല് പത്ത് ഒൻപത് ആയിരത്തി തെള്ളായിരത്തി എൺപത്തി നാല് പന്ത്രണ്ട് അഞ്ച് ആയിരത്തിതൊള്ളായിരത്തി എൺപത്തി ഒന്ന് നാല് ഏഴ് രണ്ടായിരത്തി എഴ്